നമസ്കാരം ആ ഹലോ എൻ്റെ പേര് രേഷ്മ ആ ആ സാറെ എൻ്റെ പേര് രേഷ്മ എന്നാണേ ഞാനേ ഒരു ഹോങ്കോംഗിലേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നേ എനിക്ക് അപ്പോൾ അത് പോവാൻ ഒരു കൺവിൻ പറ്റുന്നില്ല പറ്റില്ല അപ്പം എനിക്ക് അത് ഒന്നു ക്യാൻസൽ ചെയ്യാൻ ആയിട്ട് എന്താണ് അതിന്റെ പ്രൊസീജിയേർസ് ഒന്ന് പറഞ്ഞുതരാമോ ആ ടിക്കറ്റ് ഒരു മിനുട്ട് കേട്ടോ ആ ഇതല്ലേ ടിക്കറ്റ് നോക്കിയേ ആ അതെ അതെ അതെ അതെ അതെ എനിക്ക് ഒരു പേഴ്സണൽ എമർജൻസി വന്നേ അപ്പം എനിക്ക് പോവാൻ ആയിട്ട് ബുദ്ധിമുട്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് ആണ് അപ്പം ഒന്ന് ക്യാൻസൽ ചെയ്ത് തന്നാൽ വലിയ ഉപകാരം ആയിരുന്നു

ആ ആ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ ആ വരും അല്ലേ ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരേണ്ടി വരില്ലെ

ക്രെഡിറ്റ് ആവും അല്ലെ ആ ഓക്കെ ഓക്കെ ഉം ആ ചെയ്തുകൂടേ എന്താണ് വേറെ എന്തെങ്കിലും വല്ല വേണോ എന്തെങ്കിലും ഐ ഡി പ്രൂഫ് അങ്ങനെ എന്തെങ്കിലും വേണോ ആ ആ ഓക്കെ ഓക്കെ ഒര് മിനുട്ട് കേട്ടോ ഞാൻ ഒന്ന് ബാങ്ക് പാസ്ബുക്ക് ഒന്ന് എടുക്കട്ടെ അതാ അതാ ഇതാ പാസ്ബുക്ക് അത് അതിൽ ഓക്കെ ഓക്കെ അപ്പം ഓക്കെ നമുക്ക് ക്യാൻസൽ ആയ മെസ്സേജ് വരുമെന്ന് തോന്നുന്നല്ലേ ക്യാൻസൽ ആയി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ ആ ഓക്കെ ഓക്കെ ആ തീർച്ചയായും വരാം കേട്ടോ ഓക്കെ ഓക്കെ താങ്ക്യൂ താങ്ക്യൂ ശരി ബൈ ബൈ